ഇത് ഇതിൻ്റെ ടെക്നോളജിയുടെ കാര്യമെന്ന് പറയുമ്പോള് ഇന്നിപ്പോള് ബേസിക്കായിട്ട് പഠിപ്പിച്ച് തുടങ്ങുന്നതായിരിക്കുകയൊന്നുമല്ല ഇനിയിപ്പോള് ഫ്യൂച്ചറെന്ന് പറയുമ്പോള് ടെക്നോളജിയാണ് ഇനിയിപ്പോള് ഫ്യൂച്ചര് വേറെ വേറെയങ്ങനെ ഫ്യൂച്ചറായിട്ട് വരികയല്ലെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതൊക്കെയാണ് ഇനിയിപ്പോള് ഫ്യൂച്ചർ അപ്പോള് അതിനോട് ജീവിച്ചുപോകുന്നു ഇപ്പോള്ത്തന്നെ ആ ഒരു ജനറേഷന് ടെക്നോളജി പഠിപ്പിച്ച് അതിൻ്റെ ഒരു എങ്ങനെയിരിക്കണം എങ്ങനെ ജീവിക്കണം ഫസ്റ്റ് അതിൻ്റെ ഈ ജീവിക്കാനുള്ള സംഭവമെല്ലാം നമുക്കൊന്ന് വന്നിട്ട് നമ്മളതൊന്ന് ട്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പിള്ളാർക്കെല്ലാം അതിൻ്റെ ഒരു വിദ്യാഭ്യാസം അതായത് കൊച്ചുന്നാള് തൊട്ടെ ഇപ്പോള് ഇത് ഞാന് പറഞ്ഞില്ലെ മറ്റെ ഇലക്ട്രിസിറ്റിയുടെ സംഭവമാണെങ്കിലും കറന്റിൻ്റെ സമയത്ത് അവയർനസ്സ് ഇങ്ങനെ എന്താണ് നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ബോര്ഡ് തൊടരുത് അതൊക്കെ പിള്ളാർക്ക് കൊച്ചുന്നാള് തൊട്ടേ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതേപോലെ ടെക്നോളജിയുടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും പിള്ളാർക്ക് വിദ്യാഭ്യാസത്തില്ക്കൂടെ പറഞ്ഞുകൊടുക്കുന്നത് നല്ലതായിരിക്കും എങ്ങനെയെന്താണ് ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യണം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല ഏത് രീതിയില് യൂസ് ചെയ്യണം ഇപ്പോള് സർട്ടൻ ഏജ് കാറ്റഗറി ഇങ്ങനെ യൂസ് ചെയ്യുക മറ്റെ ഏജ് കാറ്റഗറി ഇങ്ങനെ യൂസ് ചെയ്യുക അതിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗ്യുലേഷൻസ് എല്ലാമൊന്ന് പഠിപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് ഈ കൊച്ചു നാള് തൊട്ടെ കൊച്ചു നാള് ശരിക്കും നമ്മള് പഠിക്കുമ്പോള് പിള്ളാരത് മനസ്സില് ഇങ്ങനെയിരിക്കും പിള്ളാരുടെ അത് കുറച്ച് വളർന്നുവരുമ്പോഴും അങ്ങനെയിരിക്കും പക്ഷേ ഇപ്പോള് നമ്മള് ഇപ്പോഴുള്ള എന്താണ് ഒരു ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടൂ പഠിക്കുന്ന പിള്ളാരുടെയടുത്ത് ഈ സാധനമെല്ലാം പറഞ്ഞാല് ഓ ഇതെന്തോന്ന് ബോറടിക്കുകയാണ് അങ്ങനെയൊക്കെ പറയും പക്ഷേ കൊച്ചുന്നാളിൽ കേള്ക്കുമ്പോള് പിള്ളാരെല്ലാം ഇത് കുറച്ച് മൈൻഡിലെടുത്തിട്ട് മൈൻഡിലെടുത്തിട്ട് അത് കറക്റ്റായിട്ട് അവര് ചെയ്യും അവരുടെ മനസ്സില് കിടക്കുന്നതുകൊണ്ട് അത് വളർന്നുവരുമ്പോള് അങ്ങനെ കിടക്കുമ്പോള് അതവരങ്ങനെ ഫോളോ ചെയ്യും അതാണ് ഈ കൊച്ചുന്നാള് തൊട്ട് അവേർനസ് ക്ലാസൊക്കെ കറക്റ്റ് എടുക്കണമെന്ന് പറയുന്നത് ഇപ്പോഴുള്ളവർക്കറിയാനുള്ള സംഭവം വീട്ടിലാണെങ്കില്പ്പോലും ഇങ്ങനെ വീട്ടില് പാരൻറ്റ്സ് ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുക അങ്ങനത്തെയൊരു സംഭവമുണ്ടാക്കിയെടുക്കണം പിന്നെ എന്താണ് ആ ഇപ്പോള് വീട്ടിലാണെങ്കില്പ്പോലും എങ്ങനെയാണ് ഇപ്പോള് വീട്ടിലായാലും എന്താണ് പിള്ളാരെ വാടാ പോടാ എന്നൊന്നും വിളിക്കാറില്ല ചില വീട്ടില് വിളിക്കാറുണ്ട് ഇപ്പോള് അതിൻ്റെയാണ് തിരിച്ച് പിള്ളാരും ഇങ്ങനെ പപ്പയെ വാടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ കൊച്ചുന്നാളില് എന്താണ് തമിഴാണ് വാങ്ക പോങ്ക അങ്ങനെയൊക്കെ വാങ്ക വാങ്ക എങ്ക പോണീങ്കേ എപ്പടി ഇറുക്കീങ്കേ അങ്ങനെ എന്താണ് ഒരു റെസ്പെക്റ്റോടെയെ വിളിക്കുകയുള്ളൂ അപ്പോള് നമ്മളിത് കേള്ക്കുമ്പോള് കേള്ക്കുമ്പോള് അവരുടെയടുത്ത് ഇങ്ങനെയെ ചോദിക്കുകയുള്ളൂ അപ്പാ എങ്ക പോണീങ്കേ എങ്ക വന്തീങ്കേ എപ്പടി ഇറ്ക്കീങ്കേ അങ്ങനെ ഒരു റെസ്പെക്റ്റോടെയെ നമ്മൾ തിരിച്ച് നോക്കുകയുള്ളൂ നമ്മളെന്ത് പറഞ്ഞുകൊടുക്കുന്നുവോ അതേ പിള്ളാരുടെയടുത്ത് റിഫ്ലക്ട് ആകുകയുള്ളൂ അത് ഇപ്പോള് നമ്മളിങ്ങനെ വാടാ പോടായെന്ന് വിളിച്ചാല് പിള്ളാര് അതുതന്നെയെ വിളിക്കുകയുള്ളൂ അപ്പോള് പിള്ളാരുടെയടുത്ത് എന്താണ് എവിടെ പോകുകയാണ് മോനെ എവിടെ പോകുകയാണ് മോനെ മോനേ അങ്ങനെയൊക്കെ വിളിക്കണം മോനെ മോളെ ആയാലും മോളെവിടെ പോകുകയാണ് കൊച്ചെവിടെ പോകുകയാണ് കുഞ്ഞെവിടെ പോകുകയാണ് ഒരു ഒരു രീതിയില് ഒരു നല്ല രീതിക്ക് ഒരു ഇതില് വിളിക്കണം എന്നാലെ പിള്ളാർ നമ്മള് പറയുന്നതെ പിള്ളാരില് റിഫ്ലക്ട് ആകുകയുള്ളൂ